പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ ഗ്രാമീണ സ്കൂളുകൾ വളരെ ഒരു ഗ്രാമീണ ഛായയുള്ള അല്ലെങ്കിൽ ഒരു വളരെ എന്തുകൊണ്ടും പഠിക്കുന്ന കുട്ടികൾ ആ പഠിക്കുന്ന കുട്ടികൾ അവരുടെ അന്തരീക്ഷം പഠിക്കുന്ന അന്തരീക്ഷം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇങ്ങനെ അവർ വരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെല്ലാം നോക്കുമ്പോൾ പട്ടണവും ഗ്രാമവും തമ്മിൽ രാവുപകൽ വ്യത്യാസമുണ്ട് ശരിക്കും പട്ടണത്തിലെ സ്കൂളുകൾ ഒരിക്കലും മോശമാണെന്നോ അല്ലെങ്കിൽ അവിടെ പഠിപ്പക്കൽ നടക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രാമീണ സുന്ദരി എന്ന് പറയില്ലേ ഗ്രാമീണ സുന്ദരിയും ഒരു ഒരു നാട്ടുംപുറത്തുകാരിയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട് അപ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ വരാം ആട്ടിത്തത്തിൽ വരാം നടത്തത്തിൽ വരാം പെരുമാറ്റത്തിൽ വരാം എന്ന് പറഞ്ഞപോലെത്തന്നെയാണ് നമ്മുടെ സ്കൂളുകളിൽനിന്ന് നമ്മുടെ ഗ്രാമീണ സ്കൂളുകളിൽനിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരു ഗ്രാമീണതയുണ്ട് അതായത് ഒരു പച്ചപ്പുണ്ട് എന്ന് വേണെൽ പറയാം അതായത് ഒരു അവർ സമൂഹത്തിൽ സമൂഹത്തിന് കൂടുതൽ ഒരു ഉത്തരവാദിത്വമുള്ളവരായി വളർന്നുവരുന്നുണ്ട് എന്നുള്ള അതായത് വേദനകളും ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും അവരുടെ മാതാപിതാക്കൾ ഇത്ര കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തിയിരുന്നത് പഠിപ്പിക്കുന്ന എന്നൊക്കെ അറിഞ്ഞ് പഠിച്ച് ജീപ്പ് സ്കൂളുകളിൽ പഠിക്കുവാനുള്ളൊരു സാഹചര്യം അവർ ശരിക്കും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്